ഈ പ്രദേശത്ത് പൊതുവേ ഇതിൻ്റെ പോരായ്മ ബാധിക്കാറില്ല കാരണം ഇവിടെയുള്ളവർ കൂടുതലായും ആശ്രയിക്കുന്നത് ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെത്തന്നെയാണ് ഇവിടുന്ന് എല്ലാവർക്കും ആവശ്യത്തിന് വേണ്ട വാക്സിന്കളും എല്ലാം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് അതിൻ്റെ അധികാരികൾ ആ കാര്യത്തിൽ വേണ്ട കൃത്യമായ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ വിഭവ പോരായ്മകൾ പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങളിൽ ഒന്നും കുഴപ്പമില്ലാതെതന്നെ ചെയ്യുന്നു ഇവിടുത്തെ ഈടുത്തെ വാക്സിനേഷൻ കേന്ദ്രത്തിൽനിന്നും കൃത്യമായിത്തന്നെ മരുന്നുകളും

അവശ്യസാധനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആദ്യം അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ വാക്സിനേഷൻ സെൻറ്റർ വലിയ ഇവടെ ഉള്ളത് ഒരു വലിയ ഉപകാരമായിത്തന്നെ ഈ പ്രദേശത്തുള്ളവർ കരുതുന്നു കാരണം പൊതുവെ ഗതാഗത സൗകര്യം കുറഞ്ഞ ഇവിടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതിനെ ആശ്രയിച്ച് അതുകൊണ്ട് ആളുകൾക്ക് പോകേണ്ടി വരില്ല എല്ലാവർക്കും ഇവിടെത്തന്നെ കൃത്യമായ സമയങ്ങളിൽ ഈ വക കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്